ഹാൻഡ് പമ്പെന്ന് പറയുന്നത് നമുക്ക് വെള്ളം ഭൂമിയുടെ അടിയിൽ നിന്നും നമ്മുടെ കുഴൽ കിണറിൽ നിന്നുള്ള വെള്ളം മുകളിലെത്തിക്കാനായിട്ട് നമ്മൾ മാനുവലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ ഹാൻഡ് പമ്പെന്ന് പറയുന്നത് ഞാൻ അത് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹാൻഡ് പമ്പ് ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് അതുകൊണ്ട്തന്നെ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ടോപ്പിൽ ഒരു പമ്പ് നമ്മുടെ കൈ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഒരു ഹാൻഡിലുണ്ട് ആ ഹാൻഡിലിൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ കൈ വെച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് അത് നമ്മുടെ കുഴൽ കിണറിൽ നിന്നുള്ള വെള്ളം മുകളിലേയ്ക്ക് ടോപ്പിലേയ്ക്ക് കയറി വന്ന് നമുക്ക് വെള്ളം കിട്ടുന്നത് അപ്പം അന്ന് അത് നല്ലൊരു സിസ്റ്റം വളരെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നില്ല ഒരു എനിക്ക് ഒരു എക്സർസൈസും ആയത് പോലെയാണ് അത് തോന്നിയിട്ടുള്ളത് അവർ വളരെ കഠിനമായിട്ടുള്ള ഒരു ഒരു പ്രവർത്തനമൊന്നും ആയിരുന്നില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഒരു മിനിമം ആരോഗ്യമുള്ള ഒരാൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അവിടെ അത്യാവശ്യം ക്യു ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിൽ കാരണം എല്ലാവർക്കും പൊതുവേ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടല്ല പക്ഷേ എങ്കിലും വേനൽ കാലത്ത് വെള്ളം കുറവുണ്ടായ ഉള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട്തന്നെ അവിടെ അത്യാവശ്യം ആളുകൾ ആ സമയത്തൊക്കെ വെള്ളം എടുക്കാൻ വരുമായിരുന്നു എങ്കിലും ഒരുപാട് വലിയ ക്യു ഒന്നും അതിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു നാല് അഞ്ച് പേരൊക്കെ ക്യു നിന്ന് അത് വെള്ളം എടുക്കു എടുക്കുമായിരുന്നു ആ സമയത്ത് പിന്നെ വേനൽക്കാലമാണെങ്കിലും അത് വരണ്ടു പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്നുള്ള വെള്ളമാണ് അതിലേയ്ക്ക് കയറി വരുന്നത് അത് ആ സമയത്തും വേനൽക്കാലത്തും അതിനകത്ത് വെള്ളം ഉണ്ടാകാറുണ്ട് എന്നുതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്